ഇന്നത്തെക്കാലത്ത് മൊബൈല് ഫോണില് ധാരാളം ആപ്പികളുണ്ട് എന്നാലും എല്ലാ ദിവസവും എന്നെ സഹായിക്കുന്ന ആപ്പ്കളാണ് വാട്ട്സപ്പ് ഡോക്സ് ഫേസ്ബുക്ക് ഗ്യാലറി അങ്ങനെ ധാരാളം അപ്പ്കളുണ്ട് വാട്ട്സപ്പ് വഴി എനിക്ക് മെസ്സേജ് എല്ലാ ദിവസോം മെസ്സേജിടാൻ കഴിയുന്നുണ്ട് ഡോക്സ് വഴി എനിക്ക് കൊസ്റ്റ്യന് റെഡിയാക്കാനെക്കൊണ്ട് കഴിയുന്നുണ്ട് ഫേസ്ബുക്കിൽ കാര്യങ്ങൾ പുറത്ത് കഴിയുന്ന പുറത്തെയുള്ള കാര്യങ്ങൾ അറിയാനെക്കൊണ്ട് കഴിയുന്നുണ്ട് ഗ്യാലറിയിൽ എല്ലാ ഫോട്ടോകളും സേന്റ് ചെയ്ത് വെക്കാന് കഴിയുന്നുണ്ട് അതൊണ്ട് ധാരാളം ആപ്പ്കൾ വഴി എനിക്ക് പ്രയോജന പ്രദമാണ്